പാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരം പാനീയങ്ങളാണ് എന്റൊരു ദിവസം തുടങ്ങുന്നത് ഞാൻ കരിപ്പെട്ടി ശർക്കരയുടെ ചായയാണ് ആദ്യം കുടിക്കുന്നത് അത് കഴിഞ്ഞു പാല് കാച്ചി ചിലപ്പം ചായ ഉണ്ടാക്കും അല്ലെങ്കിൽ പാല് കുടിക്കും അത് കൂടി കഴിഞ്ഞ കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഇട നേരമൊരു പതിനൊന്ന് മണിയാകുമ്പഴേക്കും ചൂടല്ലേ അപ്പോൾ എന്തെങ്കിലും മോരുംവെള്ളം ഉണ്ടാക്കി കുടിക്കും അതും കൂടാണ്ട് മോരും വെള്ളം അല്ലങ്കിൽ ഞങ്ങള് പൈനാപ്പിൾ ജ്യൂസടിക്കും അതൊക്കെ മേടിച്ച് വച്ചേക്കുവാന് എന്ന് വച്ച് കഴിഞ്ഞാൽ വേനൽക്കാലം ആയത് കൊണ്ട് പൈനാപ്പിൾ ജ്യൂസടിച്ച് കുടിക്കും എല്ലാവരും കൂടി അത് അടിച്ച് വക്കും ഫ്രിഡ്ജിലാണ് ഇപ്പം വയ്ക്കുന്നത് കാര്യം ഈ ഫ്രിഡ്ജിലുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയണങ്കില് ഇപ്പം തണുത്ത സാധനങ്ങളൊക്കെ കൂടുതലും കുടിക്കുന്നത് മാതിരിയുള്ള നമ്മളെ വേവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടാണ് കാലാവസ്ഥ പിന്നെ മാങ്ങാ പച്ചമാങ്ങ ജ്യൂസടിച്ചാൽ വളരെ നല്ലതാണ് പച്ചമാങ്ങ ചെറുതായിട്ടരിഞ്ഞ് ഇത്തിരി ഐസും കൂടി ഇട്ട് പഞ്ചസാരയിട്ട് ജ്യൂസടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖം കിട്ടും പച്ചമാങ്ങ ജ്യൂസടിക്കും പിന്നെ പഴുത്ത മാങ്ങ പിന്നെ ജ്യൂസടിക്കാമല്ലൊ പിന്നെ കപ്പങ്ങ ജ്യൂസുണ്ടാക്കും പിന്നെ അത് കൂടാണ്ട് മുന്തിരി മേടിച്ച് വെച്ചിട്ടുണ്ട് മുന്തിരി ജ്യൂസുണ്ടാക്കാം എല്ലാം ഒരുമിച്ച് ഉണ്ടാക്കുമെന്നല്ല പറഞ്ഞത് ഓരോ ദിവസം വ്യത്യസ്ഥ പാനീയങ്ങള് ഇണ്ടാക്കി കുടിക്കുവാന് പിന്നത് കൂടാണ്ട് നാരങ്ങ നാരങ്ങ പിഴിഞ്ഞ് ഉപ്പും പഞ്ചസാരയും കൂടി കൂട്ടി കുടിച്ച് കഴിഞ്ഞാൽ ഒരു നാരങ്ങ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദിവസത്തെ എനർജി കിട്ടുമെന്നാണ് നാരങ്ങയുടെ ഔഷധഗുണങ്ങളില് പറയുന്നത് അപ്പം നാരങ്ങ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചില്ലങ്കിലും നമുക്ക് എനർജി കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം അത് കുടിക്കും പിന്നത് കൂടാണ്ട് പൈനാപ്പിൾ ജ്യൂസടിച്ച് കുടിക്കുന്ന് ഞാൻ പറഞ്ഞല്ലോ കപ്പങ്ങ ജ്യൂസടിക്കും അങ്ങനങ്ങനെ കിട്ടുന്ന പഴങ്ങളെല്ലാം ഇപ്പം ജ്യൂസ് ഉണ്ടാക്കിയൊക്കെ കുടിക്കുകയാണ്